എനിക്ക് കൂടുതലും ഹൈക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ചുകളാണ് അത് പേഴ്സണലി എനിക്ക് എന്താണ് ബീച്ചുകൾ ഇഷ്ടം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബീച്ചിൻ്റെ സൈഡിൽ പോകുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് അതുപോലെ തന്നെ സൺറൈസ് സൺസെറ്റ് അതുപോലെ തന്നെ ബീച്ചിൽ നിന്ന് വരുന്ന ആ നല്ല കാറ്റ് അതുപോലെ തന്നെ ബീച്ച് സൈഡിലൊക്കെ നമ്മൾ കാൽ നനയ്ക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൂടുതൽ ഇപ്പം ഹൈക്കിങ്ങിന് ഇഷ്ടം എന്ന് പറയുന്നത് ബീച്ചുകളൊക്കെ തന്നെയാണ് ബീച്ചുകളുടെ ബീച്ചുകളിൽക്കൂടെ നടക്കുക അതുപോലെ തന്നെ അവിടുത്തെ മണലിൽ ഇരിക്കുക ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പർവ്വതങ്ങളിലെ സൂര്യാസ്തമയങ്ങളിൽ നിങ്ങളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തെക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങളിൽ സൂര്യാസ്തമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫറൻറ് ആയിട്ടുള്ളൊരു ഫീലിങ്ങ് ആണ് അവിടെ നമുക്ക് നമ്മുടെ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഉയരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു സൂര്യാസ്തമയം കാണുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി അടുത്ത് കാണുന്നത് പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതിലൊരു ഭംഗിയിൽ നമുക്ക് കാണാനായ്ട്ട് നമുക്ക് സാധിക്കും ആ സമയത്ത് എനിക്ക് തോന്നുന്നു സൂര്യാസ്തമയം നമ്മൾ കാണുമ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നത് പർവ്വതങ്ങളിലെ സൂര്യാസ്തമയം തന്നെയാണ്